കൃഷി കൃഷി എളുപ്പമാക്കുന്നതിനും കൃഷിയുടെ വിളവ് കൂടുതൽ ലഭിക്കുന്നതിനു വേണ്ടിയും കൃഷിക്കാർക്കായി കീടനാശിനികൾ അഥവാ കീടനാശിനികളും വളവും വളരെ വിഷം കുറഞ്ഞതും ഏറിയതുമായ വിഷ ഉൽപ്പന്നങ്ങളും കീടനാശിനികളും കാരണം വിത്തുകളുടെ വിളവ് രണ്ടിരട്ടിയായി എന്നാൽ ഇത് കാരണം മണ്ണിൻ്റെ മണ്ണിൻ്റെ വിഭുഷ്ഠിത നഷ്ടപ്പെട്ടു എന്നാൽ കൃഷി എളുപ്പമാക്കുന്നതിന് ഇവർ വണ്ടികൾ വാഹനങ്ങൾ ഉപയോഗിച്ചിരുന്നു ട്രാക്ടർ മുതലായലവ മുതലായവ ഇവരതിന് കൃഷിയുടെ ഉൽപ്പന്നമാക്കി ലഭിച്ചു കൊണ്ടിരുന്നു കൃഷിയെ ഉപയോഗിക്കുന്നതിന് ഉരഗങ്ങളെ കൂടാതെ ഓരോന്നിൻ്റെയും പ്രയോജനങ്ങളെന്തെന്നാൽ കൃഷി മെഷീനുകളുടെ ഉപയോഗം വന്നതോടു കൂടി പല തൊഴിലാളികൾക്കും തൊഴിൽ നഷ്ടപ്പെട്ടു എന്നാൽ തൊഴിൽ എല്ലാവർക്കും എളുപ്പമായി യന്ത്രങ്ങളുടെ സഹായത്താൽ തൊഴിലെളുപ്പമാക്കിയെങ്കിലും പലരുടെയും തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്തു